എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയിലെ അതായത് റിയാലിറ്റി ഷോസ് എതൊക്കെയാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയ്നായിട്ടും ഫ്ളവേഷ്സിലെ ടോപ്പ് സിംഗർ ഭയങ്കര ഇഷ്ടമാണ് അതായത് കുട്ടി കുട്ടി കലാകാരന്മാര് അതായത് ചെറിയ ചെറിയ കുട്ടികള് നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ പാട്ട് പാടുന്നത് കേട്ട് കേട്ടുകൊണ്ടിരിക്കാനും അവരുടെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കാനും നല്ലൊരു എന്റർടൈനിങ്ങ് പ്രോഗ്രാം തന്നെയാണ് നമുക്ക് ഫ്ളവേഷ്സിലെ ടോപ്പ് സിംഗർ അതുകൊണ്ട് തന്നെ അത് ഒരുപാടുകാലം അതായതിപ്പോൾ തേർഡ് സീസൺ പിന്നെ തുടങ്ങി അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും ആൾക്കാര് കാണുന്നുണ്ട് അതുകൊണ്ടാണ് തുടർച്ചയായി തുടർച്ചയായിട്ട് കണ്ടിന്യൂസായിട്ട് ആ ഒരു പരിപാടി നില നിന്ന് പോകുന്നത് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങളോ അതൊക്കെ ഈ കാർട്ടൂണൊക്കെ കാണിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കുട്ടികളുടെ വർത്തമാനങ്ങള് പാട്ട് പാടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാ ഫ്ലവർസിലെ തന്നെ സ്റ്റാർ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ടീവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആ ഒരു പരിപാടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതായത് തമാശയും ഗെയിംസും കാര്യങ്ങളും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു പരിപാടി ആയത് കൊണ്ട് അത് തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കിന് ഞാൻ കൂടുതലും ടീവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാൻ ഫ്ളവേഷ്സ് ഫ്ളവേഷ്സെന്ന് പറഞ്ഞിട്ടുള്ള ടി വി ടി വി അതായത് ചാനല് തന്നെയാണ് വെക്കാറ്